ഹലോ ഇത് ടൂർ പോവാൻ പറ്റ് കൊണ്ടുപോവാൻ പറ്റിയ ആളല്ലേ ടൂർ പോവണം ആ ക്ഷേത്രങ്ങൾക്ക് ഗുരുവായൂരും പോവണം ആ ആ അപ്പോൾ ട്രിപ്പിന് എന്ത് എന്ത് വേണ്ടി വരും ആ ആ ഇ അപ്പം അതിന് ആ അപ്പം എന്ത് വരും അതിനൊക്കെ അവിടേക്കൊക്കെ എത്രയാവും സംഖ്യ ആ എന്നാണ് പോവുക എന്നാൽ പോവാം ഓ